ഹലോ കോട്ടയത്തെ ഇണ്ടെൻ ഗ്യാസ് ഏൻസി അല്ലേ ഞാൻ വിളിക്കുന്നത് എൻ്റെ പേര് ഷാജി കുര്യൻ ഞാൻ തിരുവാതുക്കൽന്നാണ് വിളിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് നിങ്ങളുടെ കണക്ഷനാണ് ഉപയോഗിച്ചോണ്ടിരുന്നത് എൻ്റെ കൺസ്യൂമർ നമ്പർ സെവൻ എയിറ്റ് സീറോ ഫൈവ് സിക്സ് ഫോർ ഫൈവ് ത്രീ റ്റു വൺ ഞാൻ നിങ്ങളുടെ കണക്ഷൻ നല്ലതായിരുന്നു നിങ്ങളുടെ സർവീസും നല്ലതായിരുന്നു ഫോണിൽ ബുക്ക് ചെയ്താൽ രണ്ടു ദിവസത്തിനകം എത്തിച്ചേരുമായിരുന്നു നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പക്ഷേ ഞാൻ ഇവിടുന്ന് ജോലി സംബന്ധമായിട്ട് സ്ഥലം മാറി തിരുവനന്തപുരത്തിന് പോവുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് ഭാരതിൻ്റെ സർവീസാണുള്ളത് നിങ്ങളുടെ ഇണ്ടെൻ്റെ സർവീസ് ഇല്ല അതോണ്ട് ഭാരതിലോട്ട് മാറാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിലവിലുള്ള ഇപ്പോഴ്ത്തെ ബുക്കിങ് ൻ്റെ റെഫറൻസ് നമ്പറ് ത്രീ റ്റു വൺ ഫൈവ് ത്രീ ആണ് അത് ആ ബുക്കിങ് ഒന്ന് റദ്ദാക്കണം അപ്പം അതിന് ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നാൽ ഇത് റി റിട്ടൺ ആയിട്ട് ലെറ്റർ വല്ലതും തരണോ അതോ ഫോണിൽ പറഞ്ഞാൽ മതിയോ ഇനി എന്തെങ്കിലും ഞാൻ ക്യാഷ് പെയ്മെൻ്റ് അങ്ങോട്ട് നടത്താൻ ഉണ്ടോ അതോ എനിക്ക് എന്തെങ്കിലും റെഫ് റീഫണ്ട് ഇങ്ങോട്ട് തരാൻ കിട്ടുമോ അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അപ്പം നിങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും നന്ദി